എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല പഠിക്കാനാഗ്രഹമുണ്ടായിട്ടും ബുദ്ധിമുട്ട് മൂലം എനിക്ക് കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ട് ശ്രമിച്ചു നോക്കാത്തതായിട്ട് ഒന്നും ഇല്ല എല്ലാം ശ്രമിച്ചു ഒന്നിനും ബുദ്ധിമുട്ട് ആയിട്ടല്ല എനിക്ക് മറ്റേത് അതിൽ താല്പര്യം ഇല്ലായിരുന്നു അങ്ങനത്തെ അങ്ങനത്തെ പ്രത്യേകിച്ചൊന്നും ഇല്ല പാചക വിധികൾ എനിക്കങ്ങനെ ബുദ്ധിമുട്ടായത് ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല എനിക്ക് ഇഷ്ടമാണ് പാചകമൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അത്ര വലിയ ബുദ്ധിമുട്ടാണെന്ന് ഇതുവരെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല പിന്നെ എന്താണ് അതിനോടൊരു ഇൻറ്ററസ്റ്റ് തോന്നണം എന്നാലേ കാര്യം ഉള്ളൂ എന്തൊരു സാധനവും നമ്മൾ താല്പര്യം താൽപര്യത്തോടെ ചെയ്തിട്ടുണ്ടെങ്കിലേ കാര്യമുള്ളൂ താല്പര്യമില്ലാതെ നമ്മൾ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല അപ്പം നമുക്ക് എല്ലം ബുദ്ധിമുട്ടായിട്ടേ തോന്നുള്ളൂ അതിനി എത്ര വലുതാണെങ്കിലും എന്താണെങ്കിലും ശരി